ആ ഗുഡ് ഈവനിംങ്ങ് എനിക്ക് ഓണം കളക്ഷൻ സെറ്റ് സാരിയായിരുന്നു നോക്കേണ്ടത്

ഓ എനിക്കധികം വർക്കുള്ളതൊന്നും വേണ്ട ഇതെനിക്ക് എൻ്റെ അച് അമ്മാമയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അവരധികം വർക്കുള്ളതൊന്നും ഉപയോഗിക്കലില്ല കുറച്ച് സിംപിളും പക്ഷേ കുറച്ച് എലഗൻറ് ആയിട്ടുള്ളത് കാണിക്കുവോ ആ ഗോൾഡൻ കരയുള്ളതും സിൽവർ കരയുള്ളതും ഒന്ന് കാണിക്കുവോ ഓപ്പൺ ആക്കിയിട്ട് ആ കൊള്ളാം ഇത് രണ്ടും സെലക്ട് ചെയ്തോളൂ എനിക്ക് കോട്ടൺ സിൽക്കിലും കൂടെ രണ്ട് സാരി നോക്കണമായിരുന്നു അത് സെക്ഷൻ ഏതാണെന്ന് പറയുവോ അല്ലെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ ഒന്ന് വരുവോ ആ വയലറ്റ് ഒന്ന് കാണിക്കുവോ റെഡ് ഞാനങ്ങനെ ഉപയോഗിക്കലില്ല എന്നാലും ആ പീച്ചും കൂടെയൊന്ന് കാണിക്കുവോ ആ രണ്ടാമത്തെ റോയിലുള്ള മൂന്നാമത്തേതില്ലേ പീച്ച് അതൊന്ന് എടുക്കുവോ ഓക്കെ ഇത് സെലക്ട് ചെയ്തോളൂ എനിക്കിനി നൈറ്റ് സ്യൂട്സ് വേണമായിരുന്നു സ്യൂട്ട്സ് തന്നെ മതി ഇതിനെ കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ളതുണ്ടോ ഇതത്ര പോര എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ആ ബ്ലാക്കും പിന്നെ ആ മറൂണും സെലക്ട് ചെയ്തോളൂ ഇവിടെ ട്രയൽ റൂമുണ്ടോ എനിക്കിതൊക്കെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട് ഓക്കെ ഓക്കെ പിന്നെ നിങ്ങളുടെ ആ സ്പെഷ്യൽ കള കളക്ഷനില്ലേ ബനാറസ് സാരീസ് അതിപ്പോഴുമുണ്ടോ ഇതിൻ്റെ ഒറിജിനൽ തന്നെയല്ലേ ഒറിജിനൽ ബനാറസ് സാരി തന്നെയല്ലേ വരുന്നത് ഓക്കെ എനിക്കിതിൽ രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു ഒരു കൺഫ്യൂഷനിലാണുള്ളത് ഞാൻ ഞാനെന്തായാലും ഹസ്ബൻഡിനെയും കൂട്ടി വന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ തൽ ഇപ്പോൾ തൽക്കാലം ബാക്കിയുള്ളത് മാത്രം ഒന്ന് പായ്ക്ക് ചെയ്ത് തരുവോ

ഓക്കെ താങ്ക്യൂ